ഇപ്പോൾ എൻ്റെ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടേൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയാണ് അവന് ഒരു വർഷം പഠിക്കാൻ ഉള്ളത് അവക്ക് ഒരു ഒരു വർഷം പഠിക്കാൻ ഉള്ളത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വല്യ കുഴപ്പമില്ല ഒരു വർഷത്തേക്ക് പക്ഷെ സാധാരണക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി എന്നൊക്കെ വെച്ചിട്ടുണ്ടേൽ നമുക്ക് നമ്മുടെ ജോലിനേ ആസ്പദമാക്കിട്ട് മാത്രമേ അവരെ പഠിപ്പിക്കാൻ പാറ്റുളളൂ അല്ലാണ്ട് എന്ന് വെച്ചാൽ വലിയ ക്യാഷ് കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ പഠിക്കാം അവിടെയും പിന്നെ വലിയ ഫീസ് കാര്യങ്ങൾ ഒന്നും ഇല്ലാണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ട്രാൻസ്ഫർ വന്നപ്പോൾ അവളെ അവിടെ ചേർത്തു എന്നെ ഉള്ളു ഒരു വർഷമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവൾ പിന്നെ ഒന്നാം ക്ലാസ് എത്തിയതേ ഉള്ളു അല്ല കുറച്ച് എൽ യു കെ ജി എത്തിയിട്ടേ ഉള്ളു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവളെ അത്യാവശ്യം ആയിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ് വിടുക എന്ന് വെച്ചാൽ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അല്ലോ ക്ലാസ്സിൽ വിടും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ ഫീസ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവുല്ലല്ലോ